ഹലോ ഹലോ അതെയതെ

എൻ്റെ പേര് ഹരിത

ആ താങ്കളുടെ പേരെന്തായിരുന്നു

മോൻ്റെ ടി സി അവിടെനിന്ന് മേടിച്ചിട്ട് വരണം ആദ്യം മുൻപ് പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നിട്ട് പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആഹ് പിന്നെ പി ടി എ ഫണ്ട് ഒരു നൂറ്റിയൻപത് രൂപ വരുന്നുണ്ട് പിന്നെ കുട്ടിക്ക് ടെക്സ്റ്റ്ബുക്ക് വാങ്ങാനായിട്ടും കുറച്ച് പൈസ വേണ്ടിവരും പിന്നെ നോട്ട് ഒക്കെ നിങ്ങൾ പുറമേനിന്ന് മേടിച്ചോളുമല്ലോ

അത് ഒന്നും കുഴപ്പമില്ല അത് ഫ്രീ ടൈം ഉള്ള സമയത്തൊക്കെ ക്ലാസ് എട് ഫ്രീ ടൈം ഉള്ള സമയത്തൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ആഹ് കുട്ടിക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞു പോയതെല്ലാം എടുപ്പിച്ച് മൊത്തം ഇതാക്കി കൊടുക്കാം

ശനിയാഴ്ച ദിവസം ക്ലാസ് ഉണ്ട് ശനിയാഴ്ച ദിവസവും ക്ലാസ് ഉണ്ട് ആ അതെയതെ അഹ് അതെ എ രണ്ടാം ശനിയാഴ്ച മാത്രം ഇല്ല ഇല്ലില്ല രണ്ടാം ശനിയാഴ്ചയില്ല മ് ആ ആ ഉണ്ടാവും ഉണ്ടാവും നാളെയൊരു പത്തുമണിയാകുമ്പോൾ വന്നാൽ മതി ആ ആ കുട്ടീന്റെ ആധാർ കാർഡ് ഒക്കെ കൊണ്ടുവരണം ബർത്ത് സർട്ടിഫിക്കറ്റ് ഫോട്ടോ ആ ടി സിയും വേണം രണ്ടെണം എടുത്തോ മ് ആ അതെയതെ ഓക്കെ ഓക്കെ